പതിനാറ് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഏഴ് ഒൻപത് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ച് മുപ്പത് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്